ഞങ്ങളുടെ പ്രദേശത്തെ പ്രശസ്തമായ സ്കൂൾ എന്നുപറയാനൊന്നുമില്ല എല്ലാ സ്കൂളും മികച്ചത് തന്നെയാണ് എന്നാലും ജയശ്രീ ഹയർ സെക്കൻഡറി എന്നുപറഞ്ഞ കല്ലുവയിൽ ഉള്ള സ്കൂൾ ആണ് കുറച്ചൂടെ മികച്ചത് ആ സ്കൂളിൽ ഒന്ന് ഗവർമെൻറ്റ് സ്കൂളാണ് ഒന്നുതൊട്ടു പത്തുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായ പഠനം ലഭിക്കുന്നുണ്ട് അതുപോലെത്തന്നെ ഫുഡ് എല്ലാം അവർക്ക് സൗജന്യമാണ് അവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരമൊക്കെ തൃപ്തിയാണ് നഗരത്തിലെ സ്കൂളിനെകാട്ടും ബെറ്റർ എന്തുകൊണ്ടും ബെറ്റർ ഇതുതന്നെയാണ് ഇതാവുമ്പോൾ ഗവൺമെൻറ്റ് സ്കൂൾ ആണെങ്കിലും അതിൻ്റെ ഒരു വേർതിരിവ് ഒരു കുട്ടിക്കും വരുന്നില്ല എല്ലാ കുട്ടികളെയും തുല്യമായി പരിഗണിക്കുന്നുണ്ട് എല്ലാവർക്കും തുല്യവിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് പിന്നെ ഇതാണ് കുറച്ചൂടെ ബെറ്ററ് നഗരത്തിൽ പോയി പഠിക്കുന്നതിനെക്കാട്ടിലും ബെറ്ററ് ഈ ഈ വിദ്യാഭ്യാസം തന്നെയാണ് പിന്നെ ജയശ്രീ കൂടാതെ ഇവിടെ പുൽപള്ളിയെന്നു പറഞ്ഞ സ്ഥലത്തു വിജയ ഹയർ സെക്കൻഡറി സ്കൂൾ കൂടി ഉണ്ട് അതും ഒന്നു തൊട്ട് പത്തു വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ പഠനം ഫുഡ് എല്ലാം സൗജന്യമാണ് വിദ്യാഭ്യാസം തുല്യമായിട്ട് എല്ലാർക്കും ലഭിക്കുന്നു എന്നുള്ള ഒരു ഇതാണ്